ആ ചേട്ടാ രണ്ടു ദിവസം മുമ്പ് വരാമെന്ന് പറഞ്ഞതല്ലേ ഇതെന്താ ആ ഓക്കെ ഓക്കെ നമുക്കേ വീട്ടിന് മുകളിലൊരു ചെറിയ റൂമ് പോലെ സെറ്റപ്പ് ആക്കണം അതിനു ആണ് ഞാൻ വിളിച്ചത് ആ അപ്പം നമുക്കതെങ്ങനെ ചെയ്യേണ്ടതെന്ന് വച്ചാൽ മറ്റേ നമ്മൾ ഹോളോ ബ്രിക്സിൽ ചെയ്യാനിപ്പോൾ പ്ലാന് അതാകുമ്പോൾ നമ്മൾക്കത്ര അത്ര ചിലവും വരില്ല പെട്ടെന്ന് പണിയും കഴിയുമല്ലോ ആ ഇതിപ്പോൾ ഒരൂ അഞ്ചുകഞ്ചിൽ ചെയ്താൽ മതി പറഞ്ഞിട്ട് ഒരു ആ ഒര് ആറടി പൊക്കം കുഴപ്പമില്ല ആറ് ആറര അടി പൊക്കത്തിൽ ഒരു ആറര അടി വീതിയിലും മതി ഇല്ലില്ല ഒക്കെ നിങ്ങൾ കൊണ്ടുവന്നാൽ മതി നമ്മളെങ്ങനെയെങ്കിലും പിന്നെ നടക്കാനൊന്നും വയ്യ ആ മതി അതായത് അഡ്വാൻസ് വേണമെങ്കിൽ അതും തരാം അതൊന്നും പ്രശ്നമില്ല നമുക്ക് മാക്സിമം പെട്ടെന്ന് പണി തീർക്കാമെന്നുള്ള രീതിയിൽ ആ നിങ്ങളിപ്പോൾ അതിന്റെ മുകളിൽ നമുക്ക് ഇപ്പോൾ എന്താ ഇടാൻ പറ്റുക ഷീറ്റിടണോ അതോ വീണ്ടും വാർത്തിടണോ എന്ത് ചെയ്യാൻ പോകണു വർത്തിടണെക്കാളും ഷീറ്റ് ഇടണെയല്ലേ എന്താ വേണ്ടെ ആ ഓക്കെ നമുക്ക് എന്നാൽ വാർക്കുക തന്നെ ചെയ്യാം കുഴപ്പമില്ല അപ്പോൾ അതിനിപ്പോൾ എത്ര ചാക്ക് സിമെന്റും കാര്യങ്ങളൊക്കെ വേണ്ടി വരും ആ ഓക്കെ മെറ്റലെത്ര വേണ്ടി വരും നാല് തുണ്ടൊക്കെ വേണ്ടി വരും അല്ലേ ആ മറ്റേ എം സാൻഡല്ലേ അടിക്കണത് മറ്റേത് കിട്ടാനില്ലലോ ആ എം സാൻഡിപ്പം എത്ര വേണ്ടി വരും ആ ഓ ആ നിങ്ങളത് നിങ്ങൾ റെഡി ആക്കി തരില്ലേ നമ്മളതിന്റെ എടപെടേണ്ട ആവശ്യം ഇല്ലല്ലോ നിങ്ങളുടെ തന്നെ ആൾക്കാർ ഡീലർമാരൊക്കെ ഉണ്ടാവില്ലേ അത് ഒന്നും കുഴപ്പമില്ല റേറ്റൊന്നും നോക്കണ്ട നമ്മൾക്ക് സാനങ്ങൾ പണി പെട്ടന്ന് നടക്കണം നിങ്ങളുടെ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകരുത് നമ്മളിനി ഒരാളെ വിളിച്ചാൽ അയാളിനി വേറൊരാളെ വിളിച്ചൊക്കെ വേറുതെ എന്തിനാ നിങ്ങളാമ്പോൾ അതിന്റെ കാര്യം നോക്കി ചെയ്ത് ഡയറക്ട് ആയിട്ട് ചെയ്യുന്ന ആൾക്കാരായതുകൊണ്ട് നമുക്ക് മാക്സിമം റേറ്റ് കമ്മിയിൽ ചെയ്ത് തെരുവാണെന്ന് മാത്രമേ നമ്മൾ പറയുള്ളു പ്ലാനൊന്നുമില്ല ചേട്ടാ ഇതിപ്പോൾ സാധാരണ ഒരു റൂമ് അതിന്റെയുള്ളിൽ ഒരു ചെറിയ ഒരു സ്വിച്ച് ബോഡ് വയ്ക്കുക ഒരു ലൈറ്റ്

നമുക്ക് പിന്നെയൊരു എക്സ്ഹോസ്റ്റ് ഫാനും വയ്ക്കണം കേട്ടോ അതിന്റെ ഉള്ളിൽ ചൂട് ഇങ്ങനെ നിൽക്കാതിരിക്കാനെ മുകളിലായതുകൊണ്ട് ചിലപ്പോൾ ചൂട് നിൽക്കാനുള്ള ചാൻസുണ്ട് അപ്പോൾ എക്സ്ഹോസ്റ്റ് ഫാന് വയ്ക്കണോ അതിനിപ്പോൾ ഡോറിപ്പോൾ എങ്ങനെയാണ് വരിക ഫൈബറിന്റെ ഡോറെവിടെയാണ് അതിൽ നമ്മൾക്ക് സാധനങ്ങളൊക്കെ വയ്ക്കുമ്പോഴേ ഈ എലി പെഴുച്ചാഴി അങ്ങനത്തെ സാധനങ്ങളൊന്നും കയറാൻ പാടില്ല ആ ഒരിപ്പോൾ ഏകദേശം നമ്മൾക്കെത്രയാണ് ബഡ്ജറ്റ് വരിക ആ എന്നാലും നമ്മൾക്കതിന് ഒരിതുണ്ടാകുമല്ലോ ഏകദേശം ആ ഓക്കെ അപ്പോൾ നമുക്ക് പണിയിപ്പോൾ എപ്പോഴാണ് തുടങ്ങുന്നത് നാളേ അല്ലെങ്കിൽ മറ്റന്നാളായിട്ട് പണി തുടങ്ങാൻ പറ്റുമോ ആ അപ്പം നമുക്കെത്ര ദിവസം പണിയുണ്ടാവും ആ ഓക്കെ ആ എന്നാൽ പിന്നെ ഞാൻ അഡ്വാൻസിപ്പോൾ ഒന്നും വേണ്ടല്ലോ ആ ശരി കേട്ടോ അപ്പം റെഡി